ഇടുക്കി ജില്ലയിലെ പ്രധാന കാർഷിക ഉൽപ്പന്നങ്ങളും കൃഷി രീതികളും താഴെ പറയുന്നതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മളിവിടെ കൃഷി ചെയ്യുന്നത് ഏലക്ക ആണ് ഏലക്ക പിന്നെ ഇടുക്കി എന്നറിയപ്പെടുന്നത് തന്നെ ഈറ് ഇടുക്കീലെ മെയിൻ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇടുക്കിയിലും പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത് സുഗന്ധ വ്യഞ്ജനങ്ങള് തന്നെയാണ് സുഗന്ധവ്യഞ്ജനങ്ങളുടെ നാട് തന്നെയാണ് ഇടുക്കി ഇടുക്കിയില് ഏറ്റവും അധികം ഏലക്കയാണ് ഏലയത്തിൻ്റെ ഗവേഷണ കേന്ദ്രം ഇടുക്കിയിൽ പാമ്പാടുംമ്പാറേലാണ് ഏലം നന്നായിട്ട് ഏലത്തിന് ഏറ്റവും കൂടുതലായി വേണ്ട നല്ല തണുപ്പാണ് തണുപ്പ് വെള്ളം ഒക്കെയാണ് വേണ്ടത് അത് ഇടുക്കിയില് നന്നായിട്ടുണ്ട് ഇടുക്കി എന്ന് പറയുന്നത് കാടും മലയൊക്കെ ആണെങ്കിലും നല്ല തണുപ്പുള്ള പ്രദേശമാണ് ഏതാൾക്കാർക്കും ജീവിക്കാൻ പറ്റുന്നൊരു പ്രദേശം തന്നെയാണ് ഇടുക്കി എന്ന് പറയുന്നത് അപ്പം ഏറ്റവും കൂടുതലായിട്ട് എല്ലാ വീടുകളിലും ഒക്കെ കണ്ട് വരുന്ന ഒന്നാണ് ഏല ഏലയ്ക്ക ഏലം എസ്റ്റേറ്റുകള് ഇടുക്കിയിൽ ഒരുപാടുണ്ട് ഏലം ഒരു വച്ച് കഴിഞ്ഞാൽ രണ്ട് വർഷം കൊണ്ടൊക്കെ നമുക്ക് കായ എടുക്കാനൊക്കെ പറ്റും കായ എടുക്കാനിവിടെ പണിക്കാര് തോട്ടം തൊഴിലാളികള് ഒരുപാടുണ്ട് അങ്ങനെ അന്യരാജ്യത്ത് നിന്ന് വരുന്ന വരും ഒക്കെയുള്ള അങ്ങനെയുള്ള തോട്ടം തൊഴിലാളികളാണ് കൂടുതലായിട്ടും ഇവിടെ ഏലത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് അങ്ങനെ ഏലം നന്നായി തന്നെ പോകുന്ന ഒന്നാണ് പിന്നെ നല്ല വെള്ളം വേണം ഏലത്തിന് കുളത്തിൽ നിന്നോ പടുത കുളവോ അല്ലെങ്കിൽ കിണറ്റിൽ നിന്നോ ബോ കുഴക്കിണറ് ഇവിടെ നിന്നൊക്കെ വെള്ളം നമുക്ക് അടിച്ച് എല്ലാ ദിവസവും തന്നെ നനച്ച് കൊടുക്കണം അങ്ങനെ നനച്ച് കൊടുത്താൽ മാത്രമേ ഏലം നന്നായിട്ട് വളരുള്ളു അതിൽ നിന്ന് ഏലം നമ്മള് കായ് അതിൽ നിന്നെടുക്കുന്നു അത് പിന്നീട് ഉണ്ടാക്കിയോ അല്ലാതെ ഒക്കെ കാ നമുക്ക് വിൽക്കാം അങ്ങനെ പൈസ ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഏലം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുരുമുളകാണുള്ളതും കുരുമുളക് വർഷത്തിലൊരിക്കലും നമ്മളതിൻ്റെ സീസണാകുമ്പോളത് പറിക്കുന്നു അതും പറിക്കുന്നു പറിച്ച് ഉണക്കി കൊടുക്കുന്നു കൂടുതല് വീടുകളിൽ കുരുമുളക് കാണപ്പെടാറുണ്ട് ഇപ്പോളൊരു ജനുവരി ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് കുരുമുളക് നമ്മള് കൃഷി ചെയ്തെടുക്കുന്നത് അങ്ങനെ കുരുമുളകിനൊക്കെ ഏറ്റവും നല്ല വില കിട്ടുന്ന ഒന്നാണ് കുരുമുളകെന്ന് പറയുന്നത് അങ്ങനെ അതിൻ്റെ കൃഷി രീതികളുണ്ട് പിന്നെ വേറൊരു കാർഷിക ഉൽപ്പന്നാണ് റബ്ബർ റബ്ബറ് കു റബ്ബറ് അധികം കാണപ്പെടുന്നില്ല എന്നാലും ഇടുക്കിയിൽ തന്നെ ചൂട് കൂടിയ പ്രദേശങ്ങള് ചെറുതോണി തങ്കമണി ഇങ്ങനുള്ള പ്രദേശങ്ങളിലൊക്കെ കൂടുതലായിട്ടും കണ്ടുവരുന്ന ഒന്നാണ് റബ്ബർ കൃഷി റബ്ബർ കൃഷിയിൽ നമ്മള് റബ്ബറ് വെച്ച് അതിന് എല്ലാ ദിവസം അത് റബ്ബറ് വെട്ടി അതി നിന്നുള്ള പാലെടുക്കുന്നു ആ പാല് പിന്നീട് ഒറ ഒഴിച്ച് നമ്മള് ഷീറ്റാക്കി മാറ്റി ഉണക്കി കടേല് കൊടുക്കും ഇങ്ങനാണ് റബ്ബർ കൃഷി ചെയ്യുന്നത് അതും റബ്ബർ കൃഷി ചെയ്യണ റബ്ബറ് അതാ പാലാകുന്നത് ഒരു മഞ്ഞ് കാലങ്ങളില് എന്ന് വെച്ചാല് ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് കൂടുതലായിട്ടും പാലുല്പാദിപ്പിക്കുന്നത് പിന്നെ നമ്മള് ഒള്ളതാണ് കന്നുകാലി കൃഷികള് നമുക്കറിയാം ഇടുക്കി എന്ന് പറയുമ്പോൾ കാടും മലകളൊക്കെ തന്നെയാണ് പുല്ലും പ്രകൃതി രമണീയമായൊരു സ്ഥലമാണ് അതിനാൽ തന്നെ ഇഷ്ടംപോലെ പുല്ലും ഒക്കെ കാര്യങ്ങളൊക്കിവിടെ ഉണ്ട് പറമ്പും ഒക്കെയുണ്ട് ആൾക്കാർക്ക് അങ്ങനെ ഏറ്റവും കൂടുതല് കൃഷി ചെയ്യുന്നൊരു സ്ഥലം തന്നെയാണ് കന്നുകാലി കൃഷികള് കന്നുകാലി എന്ന് പറയുമ്പതില് പശു ആട് പോത്ത് എരുമ കോഴി ഇങ്ങനെ എല്ലാംപ്പെടും പന്നി ഇങ്ങനെ ഇതിങ്ങ എല്ലാത്തിനേയും കൃഷി ചെയ്യാറുണ്ട് എല്ലാ വീടുകളിലും തന്നെ കേരള ഇടുക്കിയിലെ വീടുകളെടുത്ത് കഴിഞ്ഞാൽ അറിയാം അതിലൊര് പത്ത് വീട്ടില് ഒരു ഒമ്പത് വീട്ടിലും പശു ആട് ഇതെല്ലാം കാണാം പശുവാണേൽ നമുക്ക് പാല് കിട്ടാനും ഒക്കെയായിട്ട് ഉപകരിക്കും ഫാമുകളുണ്ട് പശുവിൻ്റെ ഫാമുകളിഷ്ടംപോലെ കാണപ്പെടാറുണ്ട്

ഇടുക്കിയില് കണ്ടുവരുന്നുണ്ട് പിന്നീട് ഇടുക്കിയിൽ കാണപ്പെടുന്ന ഒന്നാണ് കൊക്കോ കൃഷി ഇണ്ട് കൊക്കോ ഫാക്ടറികളൊക്കെ ഇവിടെ ഇടുക്കിയിൽ ഉണ്ട് കൊക്കോ ആണെങ്കിൽ നമുക്ക് നനച്ച് കൊടുത്ത് കൊക്കോ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നത് ഉണ്ടായിക്കോളും അങ്ങനെ കൊക്കോയിൽ നിന്ന് നമുക്ക് ചോക്ലേറ്റൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും അങ്ങനെ ഉള്ള കൃഷി രീതികള് ഒരുപാട് കണ്ട് വരുന്നുണ്ട് പിന്നെ വെള്ളം ആണേലും വെള്ളത്തിന് അധികം ബുദ്ധിമുട്ടുകള് ഇടുക്കിലധികം വരാറില്ല നമുക്ക് തോടുകളും പാറകളൊക്കൊരുപാട് ഉണ്ട് നമുക്ക് മലയോണം മലകളായത് കൊണ്ടും മലകളും കുന്നുകളും ഉണ്ട് അവിടെന്നുള്ള വെള്ളവും കാര്യങ്ങളൊക്കൊരുപാട് കിട്ടാറുണ്ട് പിന്നെ നല്ല തണുപ്പുള്ള പ്രദേശമാണ് അങ്ങനെ ഒക്കെ ഉള്ള കാര്യങ്ങളുണ്ട് ഏലമാണ് ഏറ്റവും കൂടുതലായിട്ട് ഇടുക്കിയിൽ കണ്ടുവരുന്നത് പിന്നെ വരുന്നതാണ് ഈ തോട്ടങ്ങളൊക്കെ പിന്നെ വാഴത്തോട്ടം അങ്ങനെ വാഴയ്ക്ക എന്നൊക്കയുള്ള സാധനങ്ങള് അങ്ങനെ ഉള്ള ഈ തണുപ്പ് നൻ തണുപ്പത്ത് നന്നായിട്ട് പിടിക്കുന്ന സാനങ്ങളൊക്കെ നമ്മളിവിടെ കൃഷി ചെയ്യാറുണ്ട്